ഹലോ ആ ബാബുജിയുടെ ചായക്കടയാണോ ഞാൻ എ എന്റെ പേര് അനീഷ് എന്നാണ് ഞാൻ വിളിക്കുന്നത് നമ്മുടെ തോപ്രാംകുടി പള്ളിയുടെ അടുത്ത് നിന്നാണ് വിളിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഒരു ചെറിയൊരു പരിപാടി നടത്താൻ വേണ്ടി ഒരു കൂട്ടായ്മയുടെ പരിപാടി നടത്താൻ വേണ്ടി ആയിരുന്നു ഏതാണ്ടൊരു നൂറ് പേർ അടുത്തുണ്ട് ആ അപ്പം അടുത്ത ഞായറാഴ്ച വൈകുന്നേരം ഇത് നടത്താൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുക അപ്പോൾ നമ്മുടെ ആ വരുന്ന ഞായറാഴ്ച അപ്പം നമുക്ക് വൈകുന്നേരത്തെ ഈ പരിപാടിയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ എന്തൊക്കെ ഫുഡ് ഐറ്റംസാ നമുക്ക് ഉള്ളത് എന്തൊക്കെ ആ അതെ അതെ അതെ ചെറുകടി ആ എന്തൊക്കെയുള്ളത് എന്നുള്ളത്

ആ ആ അങ്ങനെ അതാ അതെ അതെ ആ രീതിയിലുള്ള തന്നെയാണ് നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഒന്ന് പറയാമോ

അപ്പോൾ ചായയുടെ പരിപാടി നിങ്ങൾ തന്നെ ചെയ്യുമോ ചായ ഓക്കേ അത് ചെയ്തു കൊടുക്കുമല്ലേ അല്ല കുറച്ച് അതിൻ്റത്തെന്നു വെച്ചാൽ കുറച്ചു പേര് ചായ കുറച്ചു പേര് കാപ്പി വേണം പിന്നെ മധുരം ഉപയോഗിക്കുന്നവരും ഇല്ലാത്തോരുമെല്ലാമുണ്ടല്ലോ അപ്പോൾ അത് അനുസരിച്ചു ആ അപ്പം ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും അപ്പം ഒരു വൈകുന്നേരം ഒരു അഞ്ച് അഞ്ച് ആ നൂറ് പേരുടെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു രണ്ടോ ആ അല്ല കറക്റ്റ് എണ്ണം നോക്കണ്ട ഒന്നോ രണ്ടോ ആ എടുക്കാമെന്നുള്ള രീതിയിൽ വെച്ചാൽ മതി ശരാശരി നൂറ് പേർക്കാകുമ്പോൾ ഒരു നൂറ്റി അൻപതെണ്ണം ഉണ്ടെങ്കിൽ ഓക്കെയാണല്ലോ എല്ലാം

ആ ഒരു നൂറ് പേരുണ്ടെങ്കിലേ ഒരു നൂറ് നൂറ്റിമുപ്പത് ഒക്കെയാണ് ശരാശരി മതിയായിരിക്കും അല്ലേ ഓക്കേ നിങ്ങൾ അതുപോലെ ഈ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ഈ ചെറുകടികളൊക്കെ ഉണ്ടാക്കുന്നത് അതാതു ദിവസത്തെ എണ്ണയിലാണോ അതോ അങ്ങനെയുള്ള പ്രശ്നം

ആ ആണല്ലേ ഓക്കെ ഓക്കെ

ഈ എല്ലാ നമ്മൾ ഈ എല്ലാ പലഹാരങ്ങൾക്കും അതിൻ്റെ അകത്ത് വിലവരുന്നത് ഒരേ വില തന്നെയാണോ അതോ പല പലതിനും വ്യത്യാസം ഉണ്ടോ ആ വില കൂടുതൽ വരുന്നുണ്ടല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് അത്രയുമെടുക്കുന്നതു കൊണ്ട് എന്തേലും വല്ലോം കുറച്ച് തരാനുള്ള അത്രയെ അത്രേയൊക്കെ കൂടിയല്ലേ

ഒരു പത്ത് രൂപ പത്ത് രൂപ റേറ്റിലൊക്കെ കിട്ടുമോ ആ നമുക്ക് നൂറ്റി അൻപത് വേണ്ടാ ഒരു നൂറ്റി മുപ്പതൊക്കെ മതി അതാണ് ഒരു കാര്യമേ നൂറ്റി അൻപത് വേണ്ടാ കാരണം വെച്ചാൽ അങ്ങനെ വരുമ്പോൾ ബാക്കി മിച്ചം വരുമല്ലോ അത് ശരിയാണ് അത് നമുക്ക് തന്നെ കഴിക്കാമല്ലോ മിച്ചം വന്നാൽ ആ അത് കൊള്ളാം അങ്ങനെയില്ലല്ലേ അല്ല മിച്ചം വന്നാൽ പിറ്റേ ദിവസം ഒന്ന് ചൂടാക്കി കടയിൽ കൊടുക്കാൻ ഉള്ള ഓ അങ്ങനെയാല്ലേ ആ അത് കൊള്ളാം അപ്പം എന്നോടെ നമ്മുടെ അവിടുത്തെ മനോജ് ആ പറഞ്ഞത് നിങ്ങളെ വിളിക്കുവാണേൽ അത് കൃത്യമായിട്ട് ചെയ്തു തരും എത്തിച്ചു തരുമല്ലേ ങാ ഹാ പിന്നെ അതുപോലെ നമ്മുടെ ആ

ഹലോ ആ കേൾക്കാൻ പറ്റുന്നുണ്ടോ ആണോ കോള് കട്ടായത് പോലെ തോന്നിയായിരുന്നു ഞാൻ ഓർത്തു അപ്പം തീരുമല്ലേ ഓ അഡ്വാൻസം ചെയ്യണമല്ലേ ആ ഓക്കെ അങ്ങനെയാണെങ്കിൽ ആ എന്നാൽ ഞാൻ ഞാൻ വിളിച്ചേക്കാം ഓക്കെ യോക്കെ ശരി